എന്നാപ്പാ സുഖം തന്നെ തിരക്ക് തന്നെയാണോ

ഓ എന്നാൽ അത് നമുക്ക് സ്കൂളിലേക്ക് ചെറിയ ഒരു പരിപാടി ഉണ്ടേനു അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടേനു തുന്നണം അപ്പോൾ അത് വേഗം ചെയ്തുതരുവോ ആ ഓണപരിപാടിക്കുതന്നെ നമ്മള മാഷുമ്മാർക്ക് എല്ലാവർക്കും ഒരു ഇപ്പോൾ എല്ലാവരും കോഡിംഗ് അല്ലേ കോഡിംഗ് ഡ്രസ്സ് അല്ലേ ഇടൽ അപ്പോൾ ആ അപ്പോൾ അത് മൊത്തം ആയിട്ട് എങ്ങനെയാണ് തുണി വാങ്ങി തന്നാൽ എല്ലാവരുടെ അളവും തന്ന് കഴിഞ്ഞാൽ തുന്നി തരുവോ എന്ന് അറിയാൻ അല്ല ഇല്ല ഷർട്ടേ വേണ്ടൂ സെറ്റ് മുണ്ടും ഷർട്ടും ആണ് വിചാരിക്കുന്നത് ആ ആ മുണ്ടും ഷർട്ടും മുണ്ടും ഷർട്ടും അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാവരും അതിന് ആയില്ല പരിപാടി ഇത് ആ ഓണത്തിൻ്റെ ഇതിന് വെക്കേഷന് സ്കൂൾ പൂട്ടുമല്ലോ അതിന് മുന്നത്തെ ദിവസമാണ് വരുന്നത് അന്ന് വയ്ക്കുന്നുവെന്നാണ് പറഞ്ഞത് പരിപാടി അപ്പോൾ പരീക്ഷ എല്ലാം ആയത് കൊണ്ട് കൃത്യം ആയിട്ട് മാഷ് പറഞ്ഞില്ല എങ്ങനെ ആണെന്ന് അപ്പോൾ അത് ആ നമുക്ക് ഇല്ല ഞാൻ വേഗം തന്നെ വരാം അന്നേരം കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ നമുക്ക് ഇരുപത്തി എട്ടിനാണ് സ്കൂൾ പൂട്ടുക അപ്പോൾ ഞാൻ ഒരു അതിൽ ഇടക്ക് ഇരുപത്തിയെട്ടിന് ആവുമ്പോൾ ഇന്ന് ഇപ്പോൾ പന്ത്രണ്ട് അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ എല്ലാവരുടെയും കളർ എല്ലാം നോക്കട്ടെ കളർ നോക്കിയിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പാടെതന്നെ എന്നാൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് കൊണ്ടുതരാം ആ ആ ആ അപ്പോൾ ഒരു എത്ര ആളെ എല്ലപ്പാ എല്ലാവരുടെയും പറ്റില്ലേ അടിക്കാൻ ആ ആ ആ അപ്പോൾ അളവ് എല്ലാം നമ്മൾ അങ്ങ് എല്ലാവരും ഓരോ ഷർട്ട് പീസ് അനുസരിച്ചിട്ട് തന്നാൽ പോരേ ആ ആ ആടെ ആ പീടികയിൽ തന്നെ അല്ലേ വരേണ്ടത് ആ എപ്പോൾ ഞാൻ ഇന്ന് സ്കൂൾ വിട്ടിട്ട് വൈകുന്നേരമേ വരുള്ളൂ ആ ആ എന്നാൽ ശരി എന്നാൽ ആ ശരി ശരി ആ ശരി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ